സാങ്കേതിക വിദ്യകളാണ് ഇവിടെ നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതലുള്ള വിദ്യകൾ ഇപ്പോഴത്തെ പുതിയ പുതിയ കാലഘട്ടത്തെ സാങ്കേതിക വിദ്യകളാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് അതായത് നമ്മുടെ ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് അല്പ സാങ്കേതിക വിദ്യകളെങ്കിലും മനസ്സിലാക്കേണ്ടതാണ് അതായത് നമ്മുടെ ഈ ഈ പുതിയ പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ ലോകമെന്ന് പറയുന്നത് ഈ സാങ്കേതിക വിദ്യകളാൽ ഏർപ്പെട്ടതാണ് അതുകൊണ്ടുതന്നെ നമുക്കതിൽ ജീവിച്ചു പോകണമെങ്കിൽ സാങ്കേതിക വിദ്യകൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇപ്പോൾ ഈ സാങ്കേതികവിദ്യകൾ മുന്നേറുമ്പോഴാണ് ലോകം മുന്നോട്ട് സഞ്ചരിക്കുന്നത് അതല്ലെങ്കിൽ നമ്മുടെ ലോകം പഴയതുപോലെ തന്നെ നിൽക്കുന്നതാണ് പുതിയൊരു ലോകത്തിനായി എല്ലാവരും സങ്കേതികവിദ്യകൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പിന്നെ പറയാനുള്ളത് ഈ ലോകത്ത് ഏറ്റവും നല്ല സാങ്കേതികവിദ്യകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം എന്നു പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് അമേരിക്ക എന്നു പറയുമ്പോഴെന്താണ് ഭയങ്കര ഭയങ്കര ആദ്യം മുൻ പ്രാചീന കാലം മുതൽ അവർ നമ്മളേക്കാൾ അല്ലെങ്കിൽ ബാക്കി ബാക്കി ലോകത്തേക്കാൾ മുന്നിട്ട് നിന്നാണ് ആണ് അതുകൊണ്ടുതന്നെ അവർക്ക് സാങ്കേതികവിദ്യകൾ മൂലമാണ് ഇന്ന് ഈ ലോകത്ത് നിലനിൽക്കുന്ന അതല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള പല രീതിയിലുള്ള ആ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഉപകരണകൾ ഇപ്പോൾ സ്മാർട്ട് ഫോണുകൾ എഫ് എം റേഡിയോ റോക്കറ്റുകൾ എല്ലാം സാങ്കേതികവിദ്യകൾ മൂലമാണ് സാങ്കേതികവിദ്യകൾ ഏതൊരു മനുഷ്യനും അതിൻ്റെ നമ്മുടെ ദിനചര്യയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് കാലത്തിനൊത്ത് സഞ്ചരിക്കാൻ പറ്റു അല്ലെങ്കിൽ നമ്മൾ കാലഹരണപ്പെട്ടുപോകും എന്ന് എന്നാണെനിക്ക് പറയാനുള്ളത് പിന്നെ സാങ്കേതിക വിദ്യകൾ എന്നു പറയുമ്പോൾ എല്ലാവരും പഠിക്കാനുള്ള അടിസ്ഥാന വിഷയം തന്നെ ആക്കേണ്ടതാണ് ഇനി സ്കൂളുകളിൽ അല്ലെങ്കിൽ ഈ ഈ താമസിച്ചെങ്കിൽ ഇപ്പത്തൊട്ട് ഇപ്പത്തൊട്ട് സാങ്കേതിക വിദ്യകൾ ഭയങ്കരമായിട്ട് മുന്നിട്ട് മുന്നിട്ട് നിൽക്കേണ്ടതാണ് സാങ്കേതികവിദ്യകൾ എല്ലാവരും സ്കൂളുകളിൽ ഒരു ഒരു വിഷയം തന്നെയാക്കി അത് പഠിക്കേണ്ടാണ് ചെറു ക്ലാസുകളിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ മുതൽ വലുതാകുമ്പോൾ അത് ഉയർത്തി ഉയർത്തി കൊണ്ടുവരേണ്ടതാണ് അപ്പോഴാണ് അങ്ങനെയാണ് നമ്മുടെ ലോകത്ത് ഓരോരോ ശാസ്ത്രജ്ഞന്മാരും ഓരോരോ വൈദികരും എല്ലാവരും അതിനോട് ഉയർന്നു വരുന്നത് പിന്നെ പറയാനുള്ളത് സാങ്കേദിക വിദ്യകളുടെ ഒരു കറുത്തവശമാണ് സാങ്കേതികവിദ്യകൾ എപ്പോഴും നല്ലതാണ് പക്ഷേ അത് കൂടിയാൽ അത് അത് അത് വളരെ ഒരു കാര്യത്തിൽ ഒരു മോശം കാര്യത്തിലേക്കൊക്കെ ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ് സാങ്കേതിക വിദ്യകളാൾക്കാർക്ക് ദുരുപയോഗം ചെയ്യാവുന്നതാണ് എന്നു വെച്ചാൽ ആൾക്കാരെ കൊല്ലാനും തട്ടിപ്പ് നടത്താനും എല്ലാം സാങ്കേതിക വിദ്യകൾ മൂലം സാധിക്കുന്നാണ് അതുകൊണ്ട് ഇതിൻ്റെ ഒരു കറുത്തവശം കൂടി മുന്നിൽ കണ്ടുവേണം സാങ്കേതിക വിദ്യകൾ കുട്ടികളിയൊക്കെ പഠിപ്പിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്